പാചകം ചെയ്ത് ഉദ്ദേശിച്ചപോലെ ശരിയായില്ലെങ്കിൽ അത് അതിൽ ഇനിയിപ്പം സാമ്പാറാണ് വയ്ക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ചേർത്ത ചേരുവകളൊന്നും ശരിയായില്ലെങ്കിൽ അതിൽ കുറച്ച് തേങ്ങയോ ഇനി ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ഇടുക അല്ലെങ്കിൽ എരുവ് കൂടിയാൽ കുറച്ച് തേങ്ങ അരച്ചിടുക അപ്പോൾ സാമ്പാർ റെഡിയാവും പിന്നെ വേറൊരു കറിയാണ് വയ്ക്കുന്നതെങ്കിൽ അതിനെ അതിനു ചേർക്കാനുള്ളത് ചേർന്നില്ലെങ്കിൽ അതു നമ്മൾ നന്നായി നോക്കി ചേർത്ത് ഉപ്പ് അതിൽ ചേർക്കേണ്ടതെല്ലാം ചേർത്ത് ഉപ്പോ മുളകോ എന്താ ചേർക്കേണ്ടത് വച്ചാൽ അതെല്ലാം ചേർത്ത് നല്ല നന്നായി രണ്ടാമത് വയ്ക്കുക ഇനി ഉപ്പേരിക്കാ ഉപ്പ് കുറഞ്ഞാൽ ഉപ്പിട്ട് അത് അതുപോലെയാക്കി കുറച്ച് തേങ്ങ ഒക്കെ ഇട്ട് അത് റെഡിയാക്കി എടുക്കുക എനിയിപ്പോൾ വേറെയെന്തെങ്കിലും ഉണ്ടാക്കി അതിൽ പോരായെന്ന് ഉണ്ടെങ്കിൽ അതിന്റേതായ രീതിയിൽ അതു ശരിക്ക് എല്ലാം രണ്ടാമതും വച്ചു ശരിയാക്കി എടുക്കുക ഇങ്ങനെയൊക്കെ തന്നെയാണ് പാചകം ശരിയായില്ലെങ്കിൽ രണ്ടാമത് റെഡി ആക്കി എടുക്കുന്ന വിധം